നമ്മുടെ സംസ്കാരത്തിലെ പോലെ തന്നെ നൃത്തത്തിലും സംസ്കാരവുമായി ഇഴകി ചേർന്ന് പോകുന്ന ഒന്നാണ് ഒരു കഥയിൽ നൃത്താവിഷ്കാരത്തിലൂടെ ആണ് മറ്റുള്ളവർക്ക് നമ്മൾ അത് മനസ്സിലാക്കി കൊടുക്കുന്നത് കഥയിൽ നിന്നാണ് ഓരോ നൃത്തവും നൃത്തരൂപങ്ങളും രൂപം കൊള്ളുന്നത് ഐതിഹ്യപരമായ ഓരോ കഥകളിലൂടെയുമാണ് നൃത്താവിഷ്കാരം നടത്തി അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും മുദ്രകളിലൂടെയും മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് ഒരു നൃത്ത രൂപം അതിൻ്റെ രൂപത്തോടും ഭാവത്തോടും കൂടി അഭിനയിച്ചും മുദ്രകൾ കാണിച്ചും നൃത്തരൂപം അവതരിപ്പിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കുകയും അതിനെ ആ കഥയെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് അപ്പോഴാണ് നൃത്തം എന്നത് എല്ലാവരും ആസ്വദിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമീണ സമൂഹത്തിൽ നൃത്തത്തിന് വളരെയേറെ പ്രധാന്യവുമുണ്ട്